ഓക്കെ എത്ര ദിവസത്തേക്കായിരുന്നു വേണ്ടത് അഞ്ച് ദിവസത്തേക്ക് വൺ ഡേ നമ്മളൊരു മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇതാക്കുന്നത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങ് അടുത്ത പമ്പ് വരെയുള്ള പെട്രോൾ ഉണ്ടാവും വണ്ടിയിൽ അതുകഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ അടിക്കേണ്ടിവരും അപ്പോൾ അഞ്ച് ദിവസത്തേക്കാവുമ്പോൾ ആയിരത്തിയഞ്ഞൂറ് രൂപ വേണം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഐ ഡി കാർഡ് വേണം ആ എന്തെങ്കിലും എന്തെങ്കിലും അതായത് ഇപ്പോൾ ആധാറോ അല്ലെങ്കിൽ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്തെങ്കിലും ഒന്ന് ഒന്ന് വന്ന് ഡീറ്റൈൽസേ ഹലോ കേൾക്കുന്നില്ലേ അപ്പം അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്നത്തേക്കാണ് വേണ്ടത് ഇന്നത്തേക്കാണോ അതോ നാളത്തേക്ക് എന്ന് തൊട്ടാണ് വേണ്ടത് ഹ്മ് മറ്റന്നാളോ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോ നേരത്തെ പൈസ പേ ചെയ്യണം കേട്ടോ അഞ്ച് ദിവസത്തേക്കുള്ള എമൗണ്ട് ആയിരത്തിയഞ്ഞൂറ് രൂപ അടച്ചുവെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോവാം അടുത്തുള്ള പെട്രോൾ പമ്പ് വരെ നമുക്ക് വണ്ടി ഇതാക്കാം ഏ എണ്ണ ഇല്ലയില്ല അടുത്തുള്ള പെട്രോൾ പമ്പ് വരെയുള്ള എണ്ണയേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അടിക്കാം മ് പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ടാവും ബാക്കി രണ്ട് പേരൊക്കെയാണെങ്കിൽ ഒരു ഹെൽമെറ്റ് നിങ്ങൾ കരുതിയിരിക്കണം ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഹെൽമെറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടിവരും

ആ കൊണ്ടുത്തരാം കേട്ടോ അത് കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾ നാല് ദിവസത്തേക്കാണെങ്കിലും തിരിച്ച് കൊണ്ടുത്തരാം ആ നാല് ദിവസത്തെ അപ്പോൾ നമ്മൾ നേരത്തെയൊരു അഡ്വാൻസ് പോലെ കുറച്ച് പൈസ പേ ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾ ബാക്കി അതിനനുസരിച്ച് എത്ര ദിവസത്തേക്കാണെന്ന് വിചാരിച്ച് തന്നാൽ മതി ആ അതിൽ നിന്ന് കുറയ്ക്കും

നിങ്ങൾക്ക് കല്പറ്റയിൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി കിട്ടും നമുക്കിവിടെ കല്പറ്റയിലുണ്ട് മാനന്തവാടിയിലുണ്ട് പനമരമുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെവിടെയാണ് ബസ് ഇറങ്ങുന്നത് എന്നുവെച്ചാൽ എവിടെ നിന്നാണ് വരുന്നത് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്നാൽ പിന്നെ മാനന്തവാടിയിൽനിന്ന് വണ്ടി നമ്മുടെ ഷോറൂമിൽ നിന്നെടുക്കാം കേട്ടോ ഓക്കെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി